ഞാൻ ഉറക്കെ ചിരിച്ച പുസ്തകമേതാണെന്ന് പെട്ടെന്ന് എൻ്റടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് ഇംഗ്ലീഷിലെഴുതിയ വിംബി കിഡ് എന്നു പറയുന്ന സിരീസുണ്ട് ആ ഒരു ഇതിലെ പല ബുക്കുകളും വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും തരുന്നൊരു ബുക്കാണ് ഭയങ്കര ചിരിക്കാനുള്ള ഘടകങ്ങൾ ഒത്തിരിയുള്ള ബുക്കാണ് ആ ഒരു ബുക്കെന്നു പറയുന്നത് ഒരു കുഞ്ഞുകുട്ടിയുടെ ഡയറിക്കുറുപ്പ് ആണ് ആ ബുക്ക് അത് ശരിക്കും ഇംഗ്ലീഷിലാണ് ആ ബുക്കുള്ളത് പക്ഷേ അത് ഒത്തിരി ഒത്തിരി ഇങ്ങനെ ഒത്തിരി ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് അങ്ങനെയങ്ങനെ ഒത്തിരി ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട് ഒറ്റയിരുപ്പിന് തന്നെ ഒരെണ്ണം മുഴുവൻ വായിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം അത്രയും എന്താ ചിരിക്കാനുള്ള ഘടകങ്ങൾ ഒത്തിരിയുള്ള ബുക്കാണ് അതിൽ ഒരു ആ പയ്യൻ്റെ കുടുംബമുണ്ട് ആ പയ്യന് ഒരമ്മ അതിൽ ചിത്രങ്ങളിങ്ങനെ വരച്ച് നമ്മുടെ എഴുത്ത് രീതിയിൽ തന്നെയാണ് ആ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അത്രയും ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള എഴുത്തും എന്താ പറയുക അതിലുള്ള പടങ്ങളാണെങ്കിലും ഇങ്ങനെ ആ പയ്യനെത്തന്നെ കാണണം ഇങ്ങനെ നമ്മൾ സാധാരണ വട്ടം വരച്ച് താഴോട്ട് രണ്ട് ഒരു വര അങ്ങോട്ട് ഇപ്പറെ ഒരു വര അങ്ങനെയങ്ങനെ അങ്ങനെയുള്ളൊരു മനുഷ്യക്കുട്ടി അവന്റെ അച്ഛൻ അവൻ്റ അമ്മ അവൻ്റെ ചേട്ടൻ അവനൊരു അനിയനുണ്ട് അതിൻ്റെയൊക്കെ തല മുതലയുടെ തല പോലെയൊക്കെയിരിക്കും അങ്ങനെ അത്രയും എന്താ പറയുക ചിരി ഘടകങ്ങൾ ഉള്ളൊരു ബുക്കാണ് ഡയറി ഓഫ് വിംബി കിഡ് എന്നു പറയുന്നത് വിംബി കിഡ് എന്ന് പറയുന്ന ഒരു സീരീസ് ബുക്കെന്നു പറയുന്നത് പിന്നെ അതിൽ ഏത് ഭാഗമെന്ന് ചോദിക്കാൻ അങ്ങനെ ഇന്ന ഭാഗമെന്നൊന്നും പറയാൻ എനിക്ക് ഓർമ്മ വരുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ അതിൽ വായിച്ചതിൽ എല്ലാം ആയിക്കോട്ടെ എല്ലാ ഭാഗങ്ങളും എല്ലാ സീരീസിലെ എല്ലാ ബുക്കുകളാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടം ഉള്ള ബുക്കുകളാണ് ഇപ്പം എനിക്ക് ചിരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എടുത്ത് വായിക്കാൻ തോന്നും ആ ബുക്ക് അത്രയും നല്ല ബുക്കാണ് പിന്നെ വേറെ ചിരിപ്പിച്ച ബുക്കെന്ന് പറയുന്നത് ടിൻറ്റു മോൻ്റെ ഫലിതങ്ങളാണ് കൂടുതൽ കൊച്ചിലേ ഒക്കെ എപ്പോഴും വായിക്കും കിട്ടുമ്പോൾ വായിക്കുന്നതാണ് നമ്മൾ കൂട്ടുകാരോടൊക്കെയെല്ലാം ഇരുന്നിട്ട് ഇതിങ്ങനെ ഇതിലെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പല ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ എന്താ പറയുക സിറ്റുവേഷൻ വെച്ചിട്ടാണ് കോമഡി വരുന്നത് തമാശ വരുന്നത് അപ്പോൾ ആ തമാശകൾ നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടാണെങ്കിലും ബുക്കൊക്കെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളും ചിരിക്കുന്നതൊക്കെ നമ്മുടെ പ്രത്യേക സന്തോഷം ആണല്ലോ അപ്പം നമ്മളിങ്ങനെ കൊണ്ടുപോവുമായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ വായിച്ച് ചിരിക്കാനും ഒക്കെ കൊണ്ടുപോവുമായിരുന്നു അങ്ങനെ ടിന്റുമോൻ ഫലിതങ്ങൾ പിന്നെ ഇംഗ്ലിഷിലുള്ള വിംബി കിഡാണ് ഒരു സീരീസെന്ന് പറയുന്നത്